ടാപ്പിൽ വെള്ളം ലഭിക്കാറുണ്ട് പിന്നെ ടാപ്പിൽ വെള്ളം ലഭിച്ചാൽ എങ്ങനെ എൻ്റെ ജീവിതം കൂടുതൽ വ്യത്യസ്തമാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം എന്നു വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ടാപ്പില്ലാത്തൊരു സ്ഥലമില്ല അതായത് പണ്ടത്തെ ഫെസിലിറ്റീസൊക്കെ നോക്കിയിട്ട് പണ്ട് പണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടാൻ ഇല്ലായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് വെച്ചു നോക്കുമ്പോൾ ഇപ്പം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇത് അവൈലബിളാണ് ടാപ്പൊക്കെ അവൈലബിളാണ് അപ്പോൾ പിന്നെ അത് വേറൊരു ഇഷ്യുവായിട്ട് വരുന്നില്ല പിന്നെ വെള്ളം അപൂർവ്വമായിട്ട് കിട്ടാത്ത സ്ഥലങ്ങളിപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കുറച്ചുകൂടി ഇഷ്യൂസ് നേരിടുന്നത് അല്ലാത്ത പക്ഷം അങ്ങനത്തെ ഒരു ഇഷ്യൂസ് നേരിടേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ടാപ്പിൽ വെള്ളം കിട്ടുമ്പോഴത് വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിലത് ശുദ്ധമാണോയെന്നൊക്കെ ചോദിച്ചാൽ ഏറെക്കുറെയൊക്കെ ശുദ്ധമാണ് പക്ഷേ കുറേയും അല്ലാതെ ക്ലോറിൻ ആയിട്ടുള്ള പാറ്ററുകൾ വരുന്ന ടാപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൂർണ്ണമായിട്ട് ശുദ്ധമാണെന്നു പറയാനും പറ്റത്തില്ല പിന്നെ എൻ്റെ ജീവിതത്തിന് ഈ വെള്ളത്തിൻ്റെ ഉപയോഗം അതായത് ടാപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ ഉപയോഗം എന്നു പറയുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് കൂടുതലും ഈ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അത് എൻ്റെ വീട്ടിൽ വെള്ളം കുറവുണ്ടായിരുന്നപ്പോൾ വെറെ വഴിയിൽ നിന്ന് വഴി സൈഡിലുള്ള ടാപ്പിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ടാപ്പിൽ നിന്ന് അപ്പോൾ അങ്ങനെ എടുക്കേണ്ടി വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഒരു ആത്മർത്ഥമായൊരു സ്നേഹബന്ധമൊക്കെ ഉണ്ട് ടാപ്പിനോട് പിന്നെ വെള്ളം ശുദ്ധമായ വെള്ളമാണ് ഇപ്പോഴും കിട്ടുന്നത്